ആ അതെ അതെ ആ മലപ്പുറം ഓക്കെ ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാറിൻ്റെ ഇത് എങ്ങനെ കൺസേൺ എങ്ങനെ ആണ് ആ ഓക്കെ ഓക്കെ ആണ് നമുക്ക് ഇവിടെ ഏകദേശമുള്ള എല്ലാ മോഡൽസും ഉണ്ട് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഉണ്ട് പിന്നെ ഒന്നുംകൂടി എന്താ നമ്മൾ ബുള്ളറ്റ് പോലത്തെ അത്യാവശ്യം നല്ല കുറച്ച് കൂടി ബഡ്ജറ്റിൽ ഇതാക്കുന്ന ബൈക്ക് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ബുള്ളറ്റുകൾ തന്നെ കുറച്ച് പഴയ മോഡൽസ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉള്ള വെൽ മെയിൻറ്റൈയിൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ആ ആ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കണം സ്റ്റാഫ്

മറ്റുള്ള കസ്റ്റമേഴ്സ് ഓക്കെ അപ്പോൾ ഇപ്പം അങ്ങനെ മൈലേജ്

അത് വൺ ലാക്കിൻ്റെ അടിയിൽ ആയിരിക്കും

ആ ഗിയർലെസ് സൗണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ പ്രൈസിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് നൽകുന്നത് അതിൻ്റെ കൂടെ ഗിയർ വെയറിംഗ് ഗിയേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് റൈഡിംഗ് ഗിയർസ് ആ ഓക്കെ ഓക്കെ ആ ശരി